നല്ല കുതിരസവാരി നടത്താൻ അത്യാവശ്യം നല്ല ആരോഗ്യമുള്ള ആൾക്കാരുവേണം ഇപ്പോൾ കുട്ടികളെയൊന്നും കൊണ്ട് കുതിരസവാരി ചെയ്യാൻ പോകരുത് കുട്ടികളെന്നു വെച്ചാല് സ് ഒറ്റക്കൊന്നും കുട്ടികളെയൊന്നും കുതിരസവാരിക്ക് വിടരുത് ഇപ്പോൾ നമ്മള് ഇപ്പോൾ കുറച്ചാരോഗ്യം എന്ന് വെച്ചാല് നമുക്ക് പിന്നെ കുതിര ഇങ്ങനെ നമ്മുടെ ചില ദേഷ്യം പെട്ടെന്ന് പെട്ടെന്ന് തന്നെ കൂടി അതുപോലെ ത് നമ്മ കുതിര ഒന്നിളകി നമ്മള് തെറിച്ച് തെറിപ്പിച്ചിടാനൊക്കെ നോക്കും അപ്പോൾ പിന്നെ അതിനൊക്കെവേണ്ടീട്ട് കുതിരനെ ഇങ്ങനെ ആ കയറു പിടിച്ചുമുറുക്കി ഈ ആ കുതിരപ്പുറത്ത് തന്നെ നിൽക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ആരോഗ്യം നമുക്ക് വേണം വ്യായാമമുറകൾ എന്ന് വെച്ചാല് നമ്മൾ ഇപ്പോൾ ആ നമ്മുടെ ശരീരത്തിനിപ്പോൾ നല്ല ആരോഗ്യം വേണ്ടമെങ്കിൽ നമ്മൾ ഒരുപാട് വ്യായാമങ്ങൾ ചെയ്യണം വ്യയാമമുറകൾ എന്ന് വെച്ചാല് പിന്നെ നമ്മൾ സ്ഥിരമായിട്ടു ചെയ്യുന്നത് പോലെയുള്ള ഓരോ പിന്നെ കൈയും കാലുമൊക്കെ അയവു വേണമെങ്കിൽ അല്ലെങ്കിൽ ആരോഗ്യത്തിനു വേണ്ടിയിട്ട് നമ്മളൊരുപാട് ജോഗ്ഗിങ്ങിനു പോകണം അതുപോലെ പിന്നെ അത്യാവശ്യം ഭക്ഷണം കഴിക്കണം പിന്നെ നമ്മുടെ ഡയറ്റ് നല്ല കൊണ്ട് പോകണം അപ്പോൾ ആ ഒരാൾ അത്തരത്തിലുള്ള ആൾക്കാർക്ക് കുതിരസവാരി ചെയ്യാൻ നല്ല എളുപ്പായിരിക്കും അതുപോലെ നല്ല ആരോഗ്യുണ്ടാവും അത് ചെയ്യാൻ വേണ്ടിയിട്ട്